ഒരിക്കലും ഫോട്ടോഗ്രാഫി ജീവിതോപാധിയായിട്ടും അല്ലെങ്കിൽ തൊഴിലായിട്ടും കാണുന്നവരുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരിക്കലും നമ്മൾ ഹോബിയായിട്ട് തിരഞ്ഞെടുക്കുന്നൊരു കാര്യവും നമുക്കതൊരിക്കലും ഒരു തൊഴിലാവുകയോ ഒന്നും ആവില്ല കാരണം നമ്മൾ ഹോബിയെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതിനെ ആണ് നമ്മൾ ഹോബി എന്നു പറയുന്നത് തൊഴിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ജോലി എടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് പ്രവർത്തിക്കാനായിട്ട് ഉള്ളൊരു അവവസരം അവിടെ നഷ്ടപ്പെടുകയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും അതൊരു തൊഴിലായോ തൊഴിലവസരത്തിന് ബേസ് ചെയ്തുകൊണ്ടല്ല എനിക്ക് ഫോട്ടോഗ്രാഫി തൊഴിലായിട്ട് എനിക്കൊരാവശ്യമില്ല എനിക്ക് താൽപ്പര്യവുമില്ല കാരണം ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് എൻ്റെ മനസ്സിൽ ഒരു ചിത്രത്തെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റേതായ രീതിയിൽ എൻ്റേതായ എൻ്റേതായ രീതിയിൽ എനിക്കത് പകർത്തണം എൻ്റെ ക്യാമറയിൽ അപ്പോൾ ഞാനിപ്പോൾ വേരൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ചിത്രത്തെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് അയാൾക്ക് വേണ്ട രീതിയിൽ ഞാനത് പകർത്തണം ചിലപ്പോൾ അതെനിക്ക് നടന്നെന്നും വരില്ല കാരണം എൻ്റേതായ രീതിയിലായിരിക്കും ഞാൻ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ മറ്റൊരാൾക്ക് അയാളുടെ രീതിയിൽ ഞാൻ ഫോട്ടോ എടുക്കണം എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നടക്കുന്ന കാര്യമല്ല സോ അതൊരു ഒരിക്കലും ഫോട്ടോഗ്രാഫി ഒരു തൊഴിലവസരമാക്കാം പക്ഷേ ഈ രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിൽ തൊഴിൽ ചെയ്യാനായിട്ടുള്ള സ്ഥലമല്ല ഫോട്ടോഗ്രാഫി നമ്മളിപ്പൊരു വെഡ്ഡിങ്ങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകുമ്പോഴോ അവർ അവിടെ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം കാരണം ഈ വെഡ്ഡിങ്ങ് ഫോട്ടോ ഫോട്ടോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ ഈ കല്യാണച്ചെറുക്കനും കല്യാണപ്പെണ്ണിനും എല്ലാം അവരുടെ വീട്ടുകാർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കണം അപ്പോൾ നമ്മുടേതായൊരു സ്റ്റൈലിലോ നമ്മുടേതായ ഒരു രീതിയിലോ നമുക്ക് ഫോട്ടോ എടുക്കാനോ നമ്മുടെ കഴിവുകൾ വളർത്താനോ നമുക്ക് സാധിക്കില്ല ആ ഒരു മേഖലയിൽ അവരുടേതായ രീതിയിൽ ഇപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കണം അല്ലേ ഇന്ന ആംഗിൾ നിന്നെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതവരുടെ രീതിയാണ് നമുക്ക് നമ്മുടേതായ ഒരു രീതിയിലല്ലേ നമ്മുടെ സ്റ്റാൻ്റിൽ നിന്നിട്ട് നമ്മുടേതായ രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ രീതി ഫോട്ടോ എടുക്കുമ്പോഴായിരിക്കും ആ ഫോട്ടോ കുറച്ചുകൂടി രസമാകുന്നത് അതൊരിക്കലും നമുക്ക് സാധിക്കില്ല പക്ഷേ ഈ ഈ ഒരു സമയത്തൊക്കെ അതിനുള്ള ഒരു പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഭയങ്കര പാടായിരുന്നു അതായത് ഫോട്ടോ ഒരു കല്യാണ ഫോട്ടോ എടുക്കണമെങ്കിൽ അവരുടെ രീതിയിൽതന്നെ നമ്മളെടുക്കണം ചിലപ്പോൾ അത് ശരിയാവില്ല ചിലപ്പം മൊത്തം കുളമായി പോകും ചിലപ്പം മാത്രം അത് നന്നായി പോവും അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെക്കാലത്ത് ഇപ്പോൾ എന്നു വച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൾക്കാർക്ക് വിവരം വച്ചപ്പോൾ ഈ ഫോട്ടോഗ്രാഫർമാരുടെ സ്വയം രീതി അവരുടേതായ രീതിയിൽ ഫോട്ടോ എടുക്കാനായിട്ട് അവർക്ക് ഈ ഓഹ് ഈ ചെറുക്കൻ്റെ വീട്ടുകാരാണെങ്കിലും പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിലും അവർ അവർ നമുക്കൊരു ഫ്രീഡം തരികയാണ് പണ്ടിങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോഗ്രാഫി ഒരിക്കലും ഹോബിയായിട്ട് തിരെഞ്ഞെടുത്ത ആൾക്കാർ ജോലി ആയി ചെയ്യരുത് അതൊരിക്കലും നമ്മുടെ ഒരു രീതി അല്ലെങ്കിൽ നമ്മൾക്കിത് ഇങ്ങനെയാണെടുക്കുന്നത് നമുക്കറിയാം ആ ഒരു രീതിയിൽ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴത് കിട്ടണമെന്നില്ല ഇപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളൊരാളാണ് ഞാൻ കുറേ ഫോട്ടോ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ ഫോട്ടോ ഞാനെടുക്കാറില്ല ഇപ്പോഴൊരാൾ വന്നിട്ട് പറയും എൻ്റെയൊരു ഫോട്ടോ എടുത്തു തരുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എടുക്കുമെങ്കിലും എനിക്ക് താൽപ്പര്യമില്ലെന്ന് ഞാനാദ്യം പറയാറുള്ളു കാരണം അവർക്ക് വേണ്ട രീതിയിലത്തെ ഫോട്ടോ ചിലപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ എടുക്കത്തില്ലായിരിക്കാം ഞാൻ വേറെ രീതിയിലായിരിക്കും ആ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ലല്ലോ ഇവർക്ക് വേണ്ടി അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ഹോബിയായ ഫോട്ടോഗ്രാഫി ഒരു പ്രഫഷനാക്കാൻ ഒരിക്കലും താൽപ്പര്യപ്പെടാത്തൊരാളാണ് എൻ്റെ ഹോബികളെന്നും എൻ്റെ ഹോബികളായി എൻ്റെ ഇഷ്ടങ്ങളായി ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ സമയം കളയുക കളയുക എന്നല്ല സമയം ഉള്ള സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സമയം വിനിയോഗിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ചില ഹോബികളായിട്ട് മാത്രം അതൊക്കെ നിലനിൽക്കണം എന്നാണെനിക്കാഗ്രഹം ഒരിക്കലും അതിലൊരു പ്രഫഷണൽ അല്ലെങ്കിൽ അതൊരു പ്രഫഷൻ ജോലി സാധ്യത ഒന്നും ഞാൻ കാണാറില്ല